എൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ എൻറെ ഗ്രാമത്തിലെ ജല ജലസ്രോതസ്സ് എന്ന് പറയുന്നത് തോടുകളാണ് നിറയെ തോടുള്ളൊരു ഗ്രാമമാണ് എൻ്റേത് എപ്പോഴും എന്താ പറയാ മഴക്കാലത്ത് നിറയെ അതിൽ വെള്ളം ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും വേനൽക്കാലം വരുമ്പോൾ അത് വറ്റി വരളാറുണ്ട് എൻ്റെ നാട്ടിലെ എല്ലാ സ്ത്രീകളും അവിടെത്തന്നെയാണ് അലക്കാൻ പോകാറുള്ളതും അല്ലെങ്കിൽ കുഞ്ഞ് കുട്ടികൾ വരെ കളിക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സാണ് തോടെന്ന് പറയുന്നത് പക്ഷേ വേനൽക്കാലം വരുമ്പോൾ അത് വറ്റി എന്താ പറയാ വെള്ളമില്ലാതെ സാഹചര്യമുണ്ടെന്ന് പോലും മഴക്കാലം വരുമ്പോൾ അതിൽ നിറയെ വെള്ളം ഉണ്ടാകാറുണ്ട്